ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു തൊഴില്മേഖല എന്നുപറയുന്നത് കൃഷി ആണ് കൃഷിയാണ് കൂടുതലായിട്ടും എല്ലാ ആളുകളും ആശ്രയിക്കുന്നൊരു തൊഴില്മേഖല ഇപ്പോള് ഈ മേഖലയില് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്തെന്നു വച്ചാല് പുതുതായിട്ട് വരുന്ന തലമുറ അതായത് പുതിയ യുവാക്കള് എല്ലാവരും അമിതമായ വിദ്യാഭ്യാസയോഗ്യതയുള്ള ആളുകളാണ് എല്ലാവരും ഉന്നതവിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ് അതുകൊണ്ടുതന്നെ അവര്ക്ക് കൃഷിയിലേക്ക് വരുവാന് താല്പര്യക്കുറവുണ്ട് ഇത് ഈ മേഖലയില് വളരെയധികം ഒരു വെല്ലുവിളിയാണ് നേരിടുന്നത് കാരണം ആര്ക്കുംതന്നെ കൃഷി ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയാണ് എല്ലാവര്ക്കും ഉന്നത വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് ആ മേഖലയിലേക്കാണ് അവര് പോകുന്നത്